ഇപ്പോൾ ജൈവകൃഷി നമ്മളെ വിജയകരമാക്കി നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പല പോം വഴികളുമുണ്ട് രാസകൃഷിക്കാണ് ഇപ്പോഴത്തെ സമൂഹം അല്ലെങ്കിൽ ആധുനിക സമൂഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ജൈവ കൃഷി നടത്തുകയാണ് നമ്മളുടെ ആരോഗ്യത്തിനും അതുപോലെ നല്ല ഒരു സമൂഹത്തെ നല്ലൊരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കുന്നതിനും നമ്മളുടെ ഈ ജൈവ കൃഷിയാണ് കൂടുതൽ നല്ലത് അത് വിജയകരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിലുള്ള മാർഗ്ഗങ്ങളും ഏറ്റെടുക്കാവുന്നതാണ് അതായത് ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പല രീതിയിലും ഉള്ള പഠന ക്ലാസ്സുകളൊക്കെ ഏർപ്പെടുത്തി അവർക്ക് ജൈവ കൃഷി രീതികൾ എങ്ങനെയാണ് നടത്തുന്നതെന്നും അതിന് വേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മൾക്ക് എത്തരത്തിലുള്ള നമ്മളുടെ ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അസുഖങ്ങളില്ലാതെയും നല്ലൊരു ഊർജ്ജം ഊർജസ്വരമായ തലമുറയെ വാർത്തെടുക്കാം എന്നതിനെക്കുറിച്ചും ഒരു പഠന രീതികളും അതോടൊപ്പം തന്നെ നല്ല തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അവർക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ ആ കുട്ടികൾ ഈ ഒരു കൃഷി രീതിയൊക്കെ കുറിച്ച് കടന്ന് വരുകയും അവർ വലുതായി വരുന്നതിലൂടെയും അതുപോലെ തന്നെ അവർ വീട്ടിലുള്ള അവരുടെ അച്ഛൻ അമ്മമാർക്കും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെയും ഉണ്ടാക്കിയെടുത്താൽ അവർ ജൈവ കൃഷി രീതികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിനെ നമുക്ക് പൊരുത്തപ്പെടുത്താനും സ്വാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ജൈവ കൃഷി രീതികൾ പല രീതിയിലും നമുക്ക് ഏർപ്പെടുത്താം അതായത് നമ്മളുടെ വീട്ടിൽ തന്നിൽ അധികം വീടുകളിലും പഴയ വീടുകളിലൊക്കെ ഇപ്പോഴും നമ്മളുടെ പശുക്കൾ അതുപോലെ പശു ഫാമുകളൊക്കെ നിലവിലുണ്ട് അവിടെ നമ്മളുടെ പശുവിൻ്റെ ചാണകം എന്ന് പറയുന്ന നമ്മളുടെ ഒരു ജൈവ കൃഷി രീതിവിയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജൈവ വളമാണ് അത് നമുക്ക് ജൈവ കൃഷിക്ക് വേണ്ടി കൂടുതലായി ഉപയോഗിച്ച് നമുക്ക് ജൈവ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ആട് പോലുള്ള ജീവികളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിസർജങ്ങൾ നമുക്ക് ഇത്തരത്തിൽ വളമായി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ കോഴിയുടെ വിസർജം നമുക്ക് വളമായി ഉപയോഗിക്കാം തെങ്ങിനും കമുകിനും ഒക്കെ ഇത് വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ കായ് ഫലം നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വളമൊക്കെ നല്ലതാണ് ഇപ്പം രാസ കീടനാശിനികളുടെ അല്ലെങ്കിൽ രാസവളങ്ങളുടെ അല്ലെങ്കിൽ രാസ കൃഷി രീതികളുടെ ഉപയോഗം അല്ലെങ്കിൽ അവയുടെ ഒരു ആവിർഭാവം ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള കൃഷി രീതി മുന്നോട്ട് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് നാ എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും സാധിക്കും